സമൂഹത്തിലെ ഒത്തുച്ചേരലുകൾ സാംസ്കാരികത്തെ ഒരുപാട് പിന്തുണയ്ക്കുന്നുണ്ട് ഒത്തുചേരൽ എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ സാംസ്കാരിക ഘടനയെ നിലനിർത്തുന്നതിൽ ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മളുടെ സംസ്കാരം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പലരും പല സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും സംസ്കാരങ്ങളാണ് ഇപ്പോൾ നിലനിർത്തുന്നത് ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് നമ്മളുടെ അമിതമായുള്ള ഫോൺ ഉപയോഗങ്ങൾ ഇൻ്റർനെറ്റ് ഉപയോഗങ്ങൾ നമ്മളുടെ സംസ്കാരങ്ങൾ മാറുന്നു നമ്മളുടെ ആവശ്യങ്ങൾ മാറുന്നു നമ്മൾ മറ്റുള്ളവരുടെ സംസ്കാരത്തെ നമ്മൾ ആചരിക്കുന്നു അതുകൊണ്ട് ഏറ്റവും കൂടുതലായി ഏറ്റവും മനോഹരമായി നമ്മുടെ സംസ്കാരം നമ്മൾ ഒഴിവാക്കുകയാണ് അധിനിവേഷത്തിൻ്റെ കടന്നുകയറ്റമാണ് ഇതിനെല്ലാത്തിനും കാരണം നമ്മളുടെ സംസ്കാരം നശിക്കുന്നതിനു കാരണം നമ്മൾ തന്നെയാണ് അതുകൊണ്ടു തന്നെ പലയിടങ്ങളിലും പല ആളുകളും ഒത്തുചേർന്ന് നമ്മളുടെ സാംസ്കാരിക സംഘടനകൾ നില നിർത്താൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഓണം നമ്മളുടേതായ ഒരു സംസ്കാരമാണ് നമ്മളുടേതായ ഒരു ആചാരമാണ് ആ ആചാരവും സംസ്കാരവും ചേർത്തു നിർത്താനായി നമ്മൾ ഒത്തുകൂടി ചേരുന്നു അ ഒത്തു കൂടലിലൂടെ ആ സംസ്കാരത്തെ നമ്മൾ കൈപിടിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്